അടുത്തിടെ വളരെ പ്രസക്തമായ ഫ്ലിപ്ക്കാട്ടാപ്പിൽ നിന്നും ഞാനൊരു സാന്ഡല് അത് ചെരുപ്പ് ഓഡറ് ചെയ്തായിരുന്നു അത് കുറെ നാളായി ഓഡ്റ് ചെയ്തിട്ട് അതിപ്പോൾ ഞാൻ ക്യാൻസലാക്കുകയാണ് അതിന് ആദ്യമായിട്ട് ഫ്ലിപ്പ്ക്കാട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വലതുവശത്തായിട്ട് അക്കൗണ്ട് എന്നൊരു സെക്ഷനുണ്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അത് എടുത്തതിനു ശേഷം മോളിൽ ഇടതുവശത്തായിട്ട് ഓഡറുകൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് എടുത്തതിനു ശേഷം നമ്മളോഡ്റ് ചെയ്ത പ്രൊഡക്റ്റ് ചെരുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പോവുക അതീന്ന് അത് നമ്മള് സെലക്റ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് പോകുമ്പോള് നമുക്ക് കാണാന് സാധിക്കും എഡിറ്റ് യുവര് ഓഡര്ന്നും പറഞ്ഞുള്ളൊരു ഒ ഒരൂ സൂചന നമുക്ക് കാണാന് സാധിക്കും അവിടെ നമ്മള് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മള് വെയ്റ്റ് ചെയ്യുക കുറച്ച് സമയത്തിന് ശേഷം അവിടെ കുറെ കാരണങ്ങള് കാണിക്കും അപ്പോള് നമ്മളവിടെ നമ്മുടെ കാരണം അടിച്ചു കൊടുക്കുന്നു കുറെ ടൈം എടുത്തു കുറെ സമയമെടുത്തു ഞാന് ഓഡ്റ് ചെയ്തിട്ടേകദേശം രണ്ടാഴ്ച്ചത്തോളം ആഴ്ചയോളമായി അതുകൊണ്ട് തന്നെ ഇതാ അതാണ് ഇതിനുള്ള മെയിന് ആയിട്ടുള്ള കാരണം സൊ അത് ഞാനത് ക്യാന്സല് ചെയ്യാന് പോകുന്നു അത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മള് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മെസ്സേജ് വരും ഓണ്ലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് മെസ്സേജ് വരും നിങ്ങള് എടുത്തിരിക്കുന്ന സാധനം ക്യാന്സലാക്കീരിക്കുന്നൂന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം പേജ് ഓപ്പണായി വരും അപ്പം നമുക്ക് വേണമെങ്കിലത് എളുപ്പത്തില് കിട്ടുന്ന ബാക്കി റിവ്യൂസൊക്കെ നോക്കീട്ട് പെട്ടന്ന് തന്നെ ഡെലിവറുവായിട്ടുള്ള ദിവസത്തിലേക്ക് കിട്ടുന്ന സാൻ്റല്സ്സ് ഓഡ്റ് ചെയ്യുക